എൻ്റെ കുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്ന ആളാണ് അവൻ്റെ ഫീസ് കടന എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാല് അവന് അഡ്മിഷൻ കിട്ടി ഫസ്റ്റ് ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ അവിടെ ഏതാണ്ട് രെണ്ടായിരം രൂപയോളം ഞങ്ങള അടച്ചു അടച്ചിട്ട് അവർടെ പിടിഎ ഫണ്ട് അത ഇത് പിന്നെ അങ്ങനെ കൊറേ ഫസ്റ്റ് ഇയറ് എക്സാം ഫീ ഇതെല്ലാം കൂടെ കൂട്ടി അവര് അടച്ച് കഴിഞ്ഞിട്ട് പിന്നെയം രണ്ടാമ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം പിന്നേം അവർക്ക് വേറെ എന്തൊക്കെയോ ആവശ്യങ്ങള് വേണം പി ടി എ ഫണ്ട് അങ്ങനെ ആ ഫണ്ട് വേണോന്ന് പറഞ്ഞ കൊണ്ട് പിന്നെയം നമ്മളെ അത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഒരു ഗെവൺമെൻറ് സ്കൂളുവാണ് പ്രൈവറ്റ് സ്കൂളും അല്ല അവന് പിന്നെ വിഎച്ച്എസി സയൻസ് ഗ്രൂപ്പണ് എടുത്തിരുന്നത് അപ്പം പിന്നെ അവർക്ക് കലോത്സവങ്ങൾക്ക് അത് വേറെ ഫീസ് അങ്ങനെ പല പല ഫീസുകള് വരുന്നത് കൊണ്ട് നമുക്ക്യിൻ്റെേതായിട്ടുള്ള ബുദ്ധിമുട്ടുകള് വരുന്നുണ്ട് അപ്പ ഫീസ്ഘടന അങ്ങനെ എന്താണെന്ന്ന്ന് ചോദിച്ചച്ച് കഴിഞ്ഞാ ഇതൊക്കെ തന്നെയാണ് ഫീസ്ടന വരുന്നത് വേറെ പ്രത്യേകിച്ച് ഇനി പ്ലസ്സ്ടു ആവുമ്പോ അവർക്ക് റെകോട്സിന് പിന്നെ അതുപോലെ അവർടെ വി എച്ചേസി ആകുമ്പോ അവനെ ഇത് നേഴ്സിങ്ങിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അപ്പ അവർടെ കോട്ടിന് വേറെ പൈസ പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അങ്ങനെ കൊറേ അത് തന്നെ ആയിരം രൂപയോള ആവും അപ്പ അങ്ങനെ പിന്നെ യൂണിഫോമിൻ്റെത് യൂണിഫോം ആണെങ്കിലും അവർക്ക് ഏതാണ്ട് രെണ്ടായിരത്തഞ്ഞൂറ് രൂപയോളം യൂണിഫോമിൻ്റെ തന്നെ വരുന്നുണ്ട് അത് അവര് തന്നെ തയ്ച്ച് നമുക്ക് തിരികയാണ് പക്ഷേ അങ്ങനെ വരുമ്പോഴും സാധാരണ ഒരു ഒരു ഒരു മാതാപിതാക്കളെയും കൊണ്ട് ഇതൊക്കെ ഗവൺമെൻറ്റന്ന് പറയുന്നതേ ഉള്ളു പക്ഷെ അതും ഫീസ് അവർക്ക് കൊടുത്താണ് അവരെ പഠിപ്പിക്കുന്നത് സാധാരണ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലല്ല ഗവൺമെൻറ് സ്കൂളും ഇത്രയൊക്കെ ഫീസ് ഘടനിയാണ് വരുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങള് തന്നെയാണ് ഇനിയം സെക്കൻ് ഇയർ ഇപ്പം പ്ലസ് ടു ആവുമ്പം ആ ഫീസ് എങ്ങനെയാണെന്ന അറിയത്തില്ല അപ്പ അത ഇതേപോലെ കൊടുക്കണം എന്നുള്ളതായിരിക്കണം അപ്ലി അഡ്മിഷൻ ഫീസ് അങ്ങനൊക്കെയുള്ള ഫീസുകള് കാണുവായിരിക്കും അഡ്മിഷൻ ഫീസ് കാണത്തില്ല അല്ലാത്ത ഫീസുകള് കാണും അപ്പ ഇത് നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾടെ വിചാരങ്ങള് ഗവൺമെൻറ്റിലാകുമ്പോ അവർക്ക് ഫീസ് അത്ര ആകത്തില്ല പ്ലസ് വൺ പ്ലസ്ടൂൻ്റെ കാര്യാണ് ഞാൻ പറയുന്നത് അവനിനി പ്ലസ്ടൂവിനാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഫീസ് ഘടന വരുന്നത് പിന്നെരു കുട്ടിയെ വിടുമ്പം നമുക്ക് ബസ് ഫെയർ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് സാധാരണ ആൾക്കാർക്ക് അവര് സ്കൂളീന്ന് നമ്മള് എടയ്ക്ക് എടയ്ക്ക് ഓരോ ആവശ്യങ്ങള് പറഞ്ഞ് നമ്മളെ ഇന്നതിന് പിടിഎ ഫണ്ട് അത്ര ബിൽഡിംഗ് ഫണ്ട് ഇത്ര എത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അപ്പ അങ്ങനെയൊക്കെയള്ള പ്രശ്നങ്ങള് വരുന്നുണ്ട് അതാണ് വെരുന്നത് അങ്ങനൊക്കെ പ്രശ്നങ്ങള് വരുന്നത് കാരണം ഇത്രൊക്കെയാണ് ഫീസ്ഘടന വിടുന്നത് പക്ഷേ ഇതിപ്പം ഇത്ര ഒരു ഇത്രേം പറയുന്ന ഒരു സംഗതിക്ക് ഇപ്പം മൂന്ന് മിനിറ്റാണ് ഇപ്പ ആവുന്നത് ഇപ്പ മൂന്ന് മിനിറ്റാവുന്നേ ഉള്ളു അപ്പ അത്രേ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നന്നേ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു ഫീസ് കടന എന്ന് പറയുന്നത് അത്രയാണ് എൻ്റെ മോൻ്റെ ഫീസിൻ്റെ ഘടനന്ന് പറയുന്ന ഇത്രേം കാര്യങ്ങളാണ്